ഞാൻ പൊതുവെ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് എന്നാലും അവിടിവിടെ ഒക്കെയായിട്ട് പാരമ്പര്യമായിട്ട് വന്ന ഒരു അന്ധവിശ്വാസങ്ങളില് ഒരിതുണ്ടെങ്കിലും ഒരുവിധം അന്ധവിശ്വാസങ്ങളെ ഞാൻ എതിർക്കുന്നു എന്നാൽത്തന്നെ നമ്മുടെ സമൂഹങ്ങളിലിപ്പം ഒരുപാടുതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കാണുന്നുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽത്തന്നെ ഒന്ന് നമ്മുടെ എവിടെ എങ്കിലും പോകണ വഴിക്ക് പൂച്ച പൂച്ച കുറുകെ ചാടിയാൽ അത് ലക്ഷണക്കേടാണെന്നും ഉപ്പൻകാക്ക ഇടത്തു നിന്ന് വലത്തോട്ടു പോയാൽ നല്ലതും വലത്തു നിന്ന് എടത്തോട്ടു പോയാൽ നല്ലതല്ലയെന്നും തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം എവിടെ നോക്കിയാലും അന്ധവിശ്വാസമാണ് നമുക്ക് നമ്മുടെ ചുറ്റൂമുള്ള എവിടെ നോക്കിയാലും നമുക്ക് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും നമ്മുടെ സമൂഹം അത്രയ്ക്ക് കീഴ്പ്പെട്ട് പോയി അതിനോട് വിശ്വാസം എവിടെ ഉണ്ടോ അവിടെ അന്ധവിശ്വാസം ഉണ്ട് എന്നാലും അതില് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടെങ്കിലും വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ സാധിക്കൂള്ളൂ